ഞാൻ എടുത്ത ചിത്രത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ചിത്രം എന്ന് പറഞ്ഞാൽ ചിത്രം എന്ന് പറഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഒരു സൈക്കോളജിക്കല് ഒരു ത്രില്ലർ സിനിമ ഉണ്ടായിരുന്നു അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ആ അതന്ന് പറഞ്ഞാൽ ആ അതെന്ന് പറഞ്ഞാൽ സൈക്കോളജി ത്രില്ലിനകത്തെന്ന് പറയാൻ ഒരു രണ്ട് മൂന്ന് കുടുംബത്തിനകത്ത് ുണ്ടാകുന്ന ഒരു ചില ക്ലാഷും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് പിന്നെ അതെങ്ങനെയാണ് ഒരു സൈക്കോളജിസ്റ്റ് പരിഹരിക്കുന്നത് എന്നുള്ളതാണ് അതായത് ഒരു എന്നാ ഒരു പുള്ളിക്കാരന് ഇഷ്ടമില്ലാത്ത ഒരു കമ്പനീ കയറുന്നു അതുമൂലം അവനുണ്ടാവുന്ന വർക്ക് സ്ട്രെസ് ഉണ്ടാകുന്നു വർക്കില് ഭയങ്കരമായിട്ട് സ്ട്രെസ്സം കാര്യങ്ങളൊക്കെ വന്നിട്ട് ചെക്കന് വിഷയമായിട്ട് ചെക്കൻ കാര്യങ്ങളൊക്കെ പറയുകയാണ് ചെക്കൻ തൻ്റെ കലിപ്പെല്ലാം തീർക്കുന്നത് തൻ്റെ ഭാര്യയോടാണ് അപ്പോൾ ഭാര്യ പാവം എന്താ എന്താ ഇത്രയും ഒരു പെട്ടെന്നൊരു എന്താ സ്വഭാവത്തിലുള്ള ഒരു പെരുമാറ്റത്തിൽ ഒരു മാറ്റം വരുമ്പോഴത്തേനും അത് വളരെയധികം ഭയങ്കരമായിട്ട് എഫക്ട് ചെയ്യുന്നത് തൻ്റെ ഫാമിലീയില് എന്നിട്ട് അത് അവർക്ക് ഭയങ്കരമായിട്ട് സങ്കടം സങ്കടം വരുന്ന രീതിയിലാണ് അങ്ങനെ ഒരു കുടുംബം പിന്നെ അതുപോലെ വേറൊരു കുടുംബം ഉണ്ട് ആ കുടുംബന്നു വച്ചാൽ പുതിയായിട്ട് കപ്പിള് മാരേജ് ആയിട്ട് വന്നിട്ട് വന്നിട്ട് അവർക്ക് അവരുടെ ഇടയിലുണ്ടാകുന്ന മ്യൂച്വൽ ആയിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ്ങ് കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഒരു ഇതാണ് അതിനകത്ത് ചെക്കന് ചെക്കനുണ്ടാകുന്ന ചെക്കനും പറയുന്ന കുറേ കുറ്റപ്പെടുത്തലും കാര്യങ്ങളും കാരണം തൻ്റെ ഭാര്യ അനുഭവിക്കുന്ന കുറച്ച് പ്രശ്നങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കരമായിട്ട് പ്രശ്നങ്ങളുണ്ടാവുന്നു അങ്ങനൊരു ചിത്രം പിന്നെ അതുപോലെ ഈ ചിത്രത്തിൻ്റെ ഇടയ്ക്ക് വേറൊരു സംഭവം വെച്ചാൽ തൻ്റെ സൈക്കോളജിസ്റ്റിൻ്റെ കുടുംബത്തിൽ ഒരു പ്രശ്നം പോലും ഉണ്ടാകാതെ നോക്കുന്നുണ്ട് അപ്പം ഒരു പ്രശ്നം ഫാമിലി കൗൺസിലർ ഫാമിലിയായിട്ട് കൗൺസിലിങ്ങ് ചെയ്യുന്ന ഒരു പുള്ളിക്കാരിയാണ് നടി അപ്പോൾ അവരുടെ കുടുംബത്തിൽ ഒരു പ്രശ്നംപോലും ഉണ്ടാകാതിരിക്കാനായിട്ട് സാധാരണ കൗൺസിലിങ് കാര്യങ്ങൾ ചെയ്യുന്ന കുറേ മെതേഡ് ഒക്കെ യൂസ് ചെയ്തിട്ട് തൻ്റെ ഭർത്താവ് ഭാര്യയുമായിട്ട് ഒരടിപോലും ഉണ്ടാവാത്ത ഒരു കുടുംബമാണ് അത് അങ്ങനെ ഒരു കൊണ്ടുപോകുന്ന ഒരു കുടുംബത്തിനുണ്ടാകുന്ന സ്ട്രെസ്സ് കാര്യങ്ങളൊക്കെ അങ്ങനെ ഒരു ബാഗ്രൗണ്ട് വെച്ചിട്ടുള്ളൊരു സിനിമ അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ആ സിനിമേടെ പേര് പേര് ഞാൻ മറന്നുപോയി കറക്റ്റ് ആയിട്ട് പക്ഷെ ആ സിനിമ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു അതുപോലെ പിന്നെ എന്താണെന്ന് വെച്ചാൽ പിന്നെ അതുപോലെ കുറേ ത്രില്ലർ സിനിമയൊക്കെ ഭയങ്കരമായിട്ട് എനിക്കിഷ്ടപ്പെട്ടു കുറേ അത് കുറേ എ ഏ ആർ എമ്മ് അങ്ങനെ കുറേ അധികം സിനിമകൾ എനിക്കിഷ്ടപ്പെട്ടു പിന്നെ കുറേ ഞാൻ സിനിമ സിനിമ കുറേ കാണാറുണ്ടായിരുന്നു ഞാനധികം ടീ വീല് സിനിമ കാണാതെ ഇരിക്കും എന്നിട്ട് അല്ലാതെ ഉള്ള അല്ലാതെ കാണുന്നതാണ് നമ്മൾ സാധാരണ കാണാറുള്ളൂ നമ്മളെ ടി വി യിലൊന്നും ഫോണേലാണ് നമ്മൾ സാധണ കാണാറ് കാരണം വെച്ചാൽ പരസ്യം ഒക്കെ വരുമ്പോഴത്തിനും നമുക്ക് ദേഷ്യം വരും അപ്പം അങ്ങനെയാണ് കാണാറ് പിന്നെ ആ കഥ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അത് ഏദേശം നല്ല കൗൺസിലിങ്ങിൻ്റെ ഒരു ബാഗ്രൗണ്ട് ഉള്ളതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാനൊക്കെയായിട്ട് പറ്റി അങ്ങനെ ഒരു സിനിമയായിരുന്നു പിന്നെ ഒരു ഫാമിലിയിലുണ്ടാവുന്ന ചില ക്ലാഷും കാര്യങ്ങളൊക്കെ എങ്ങനെ എന്നാ എന്തൊക്കെ ഇൻറ്റർവെൻഷൻ ചെയ്യാമെന്ന രീതിയിൽ നമുക്ക് മനസ്സിലാക്കി തരാനായിട്ട് ആ സിനിമ സഹായിച്ചു